ഞങ്ങൾ ഞാൻ അങ്ങനെ വേറൊരു രാജ്യത്ത് അങ്ങനെ പക്ഷി നിരീക്ഷണത്തിനു പോയിട്ടില്ല അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള പക്ഷി പക്ഷികളെ നിരീക്ഷിക്കാറുണ്ട് അതിനു താത്പര്യവും ഉണ്ട് ഞങ്ങൾ കോവിഡ് കുമരകത്തു പോയി വള്ളത്തിലൊക്കെ കയറി പക്ഷിയെ കാണാൻ വേണ്ടിയൊക്കെ കുറേ ശ്രമിച്ചു അപ്പം കുറച്ചു പക്ഷികളെയൊക്കെ കാണാൻ പറ്റി അത് വളരെ താത്പര്യവുള്ള ഒരു അനുഭവമായിരുന്നു വള്ളത്തിലൊക്കെ യാത്ര ചെയ്തു ഒരു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ വിദേശത്തു പോയി ഒന്നും പക്ഷി നിരീക്ഷണം നടത്താൻ ഒന്നും സാധിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെ പോ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ പക്ഷികളും വിദേശത്തുള്ള പക്ഷികളും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാകുമായിരിക്കുമല്ലോ ഇവിടുത്തെ പക്ഷികൾ നമുക്ക് കുറച്ചൂ കൂടി അവൈലബിലാണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ആണെങ്കിലും നമ്മുടെ വീടിനു ചുറ്റുമൊക്കെ ആണെങ്കിലും വരാറുണ്ട് നമുക്ക് കാണാറുണ്ട് അതിനെ ആസ്വദിക്കാറുണ്ട്